ആ പറയൂ ആ അതെ ആ ആ പിന്നെ പത്ത് സെന്റ് അല്ലേ കുറയാൻ പാടില്ലല്ലോ പത്ത് തന്നെ വേണോ കൂടിയാൽ കുഴപ്പമുണ്ടോ പത്താണോ വേണ്ടത് പിന്നെ ഒരു ടൗൺ ഏരിയയിൽ വേണോ അല്ലെങ്കിൽ ഉള്ളോട്ടുള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമുണ്ടോ ആ അപ്പോൾ ഇപ്പോൾ നമുക്ക് ടൗൺ ഏരിയയിൽ സ്ഥലം ഒക്കെ കുറവാണ് പിന്നെയും ഈ എം ജി റോഡ് ആ ഒരു ഭാഗത്തൊക്കെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ ഒന്നിപ്പോൾ ഒരഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന ചെറിയ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഒരു ഷോപ്പ് ഒക്കെ തുടങ്ങ് തുടങ്ങണമെങ്കിൽ അങ്ങനെ ബിൽഡിങ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെയൊരു പത്ത് സെൻറ്റ് ഒരു പത്തര സെൻറ്റ് സ്ഥലമുണ്ട് അതെന്ന് പറയുമ്പോൾ ഒരു പിന്നെ ആ ഒരു ഏരിയയിൽ തന്നെ ടൗൺ ഏരിയയിൽ തന്നെ അപ്പോൾ അതിനൊരു പത്ത് അൻപത് ലക്ഷം രൂപ വരും അപ്പം നിങ്ങൾക്ക് അത്ര എടുക്കാനുണ്ടാവുമോ അൻപത് ലക്ഷം രൂപയൊക്കെ എടുക്കാൻ ഉണ്ടാവുമോ ആ നിങ്ങൾക്ക് എങ്ങനെ കുറഞ്ഞ കുറഞ്ഞ റേറ്റ് ഉള്ള സ്ഥലമാണോ വേണ്ടത് അല്ലെങ്കിൽ കൂടിയ റേറ്റ് ഉള്ള സ്ഥലമോ കുറഞ്ഞ റേറ്റിലുള്ളത് അപ്പോൾ ഇപ്പോൾ ടൗൺ ഏരിയയിലൊന്നും കുറഞ്ഞ റേറ്റിന് അങ്ങനെ കിട്ടില്ല ആ പിന്നെ അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലങ്ങളൊക്കെ ആ ഒരു റേറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രയാണ് റേറ്റ് ഒരു ഇരുപത്തഞ്ചൊക്കെ മതിയോ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പത്ത് സെൻറ്റ് കിട്ടുമോ എന്ന് സംശയമാണ് പിന്നെ ഉൾ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഉള്ളോട്ടുള്ള സ്ഥലങ്ങൾ കോഴിക്കോട് മാവൂർ റോഡിൽ അവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് പക്ഷേ അത് ഉള്ളോട്ടുള്ള ഒരു ചെറിയ ഇടവഴികളിലൂടെയൊക്കെ പോവേണ്ടി വരും അപ്പം അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ഇല്ല ഉൾ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇടവഴികളായത് കൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ ബൈക്ക് പിന്നെയും പോവും വലിയ കാറും അങ്ങനെ ഒന്നും പോകാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഞാനൊന്നുകൂടെ നോക്കട്ടെ നിങ്ങൾക്ക് വണ്ടിയൊ റോട്ടിൽ സ്ഥലത്തിലെത്തണം അല്ലേ ആ നിങ്ങൾക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ആ ആ വീട് എടുക്കുമ്പോൾ എന്തായാലും വണ്ടി മുന്നോട്ട് ഒന്ന് സ്ഥലത്തെത്തണമല്ലോ അല്ലേ ഇപ്പോൾ കല്ലും അതൊക്കെ കൊണ്ട് ഇറക്കുന്നതാണെങ്കിൽ പിന്നെ പത്ത് സെൻറ്റ് ഞാനൊന്നുകൂടെ ഒന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ സ്ഥലം ഒന്ന് നോക്കാൻ വരാൻ പറ്റുമോ ഇപ്പോൾ ടൗൺ ഏരിയയിൽ ഞാനൊന്ന് കണ്ടിന് ഒരു ഒമ്പത് സെന്റ് ഒരു എട്ട് എട്ട് എട്ടര സെന്റ് സ്ഥലമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ അത് കുറച്ച് സൗകര്യം ഉള്ള സ്ഥലമാണ് ഒരു നിരന്ന സ്ഥലം ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മതിയാവുമെങ്കിൽ വീട് വീടൊക്കെ എടുക്കാൻ നല്ല ഒരു നല്ലൊരു സ്ഥലമാണ് വീടൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ അതിനൊരു മുപ്പത് ലക്ഷം രൂപയാവും നിങ്ങളത് വന്നിട്ട് നോക്കുവോ ആ ആ അന്ന് വന്നാൽ മതി എന്നാൽ അപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെ ഉടമേനെ ഒന്ന് വിളിക്കട്ടെ അപ്പോൾ നിങ്ങൾ അവർ എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് ഞാനൊന്നൂടേ ഈ നമ് ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ആ എന്നാ ആ എന്നാൽ ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് പറയാം നിങ്ങൾ മറ്റന്നാളൊരു ഉച്ചകഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാൽ ഒരു എത്തുമ്പോൾ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ വരാം ആ എന്നാൽ ഓക്കെ